സ്ത്രീകളിലെ ആർത്തവം എന്നു പറയുകയാണെങ്കിൽ അവർക്ക് ഈ മാസം മാസം വരുന്ന ഒരു ബ്ലഡ് ബ്ലീഡിങ്ങ് ആണ് ഈ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ ഗർഭപാത്രം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആണ് ആർത്തവം എന്ന് പറയുക കാരണം അവരുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനു കിടക്കാൻ വേണ്ടി അവർ എന്താ പറയുക ശുദ്ധീകരിക്കുന്നതായാണ് ഈ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർത്തവം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മളെ അടിവസ്ത്രങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ചില പണ്ടത്തെ ആൾക്കാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ലയെന്നു പറയും ഈ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു എന്താ പറയുക അയിത്തം പോലെയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെ ഒന്നും ഇല്ല പക്ഷേ എന്നാലും ഉണ്ട് ഈ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല അങ്ങനത്തെ പല പരിപാടികളും ഉണ്ട് പക്ഷേ അവരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണെന്ന് അവരാരും മറക്കരുത് പിന്നെ എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വൃത്തിയാണ് വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിവസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക വൃത്തിയായിട്ട് അവിടുത്തെ ആ ഭാഗങ്ങളൊക്കെ കഴുകുക ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വൃത്തിയാണ് മെയിൻ ഇതിൽ ഉള്ളത് ഇതാണ് ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആണ് കാരണം വൃത്തിയായിട്ട് നടക്കുക വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുക പിന്നെ പാഡ് പാഡിനെക്കാട്ടിയും നല്ലത് തുണിയാണ് തുണിയാണ് നല്ലത് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരാൻ പാഡ് ആണ് കാരണം നല്ല ക്വാളിറ്റി പാഡ് യൂസ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പം ഒന്നും ഇല്ലെങ്കിലും തുണിയാണ് കുറച്ചുകൂടി നല്ലതായിട്ടു തോന്നുന്നത് പക്ഷേ തുണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരും അതേ ഉളളൂ പ്രശ്നം പിന്നെ മെയിൻ ആയിട്ട് വൃത്തിയായിട്ട് നടക്കുക